ജോലി സ്ഥലത്തെ സംഘർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പം നല്ല ബുദ്ധിമുട്ടുള്ള ജോലിയായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ മറ്റ് ജോലിക്കാരെ അതിനെ പറ്റി നമുക്ക് വിഷമങ്ങളുണ്ടാക്കുന്ന രീതിയിൽ സംസാരങ്ങളുണ്ടാകും അപ്പം നമ്മൾ കഴിയുന്നതും അത് അവരോട് മിണ്ടാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ചിലപ്പം നമുക്ക് പ്രയാസമില്ലാത്ത ജോലികൾ ചെയ്യാം അപ്പോൾ നമുക്കതിനെ പറ്റി നേടാനും നമുക്ക് പറ്റും അതേപോലെ തന്നെ ജോലിസ്ഥലത്തെ പല ജോലികളും പല രീതിയിലായിരിക്കും വല്ല ബുദ്ധിമുട്ടുള്ളത് നമുക്കതിൽ നേരിടേണ്ടതായി വരും അതുകൊണ്ട് നമ്മൾ ഓരോ ജോലി ചെയ്യുമ്പം അതിൻ്റെതായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ് ഒരു സംഘർഷം ഉണ്ടായാൽ തന്നെ നമ്മൾ കഴിയുന്നതും അതിൽ നിന്ന് ഒഴിവാക്കി നിൽക്കേണ്ടതാണ് നമുക്ക് പറ്റുന്ന കാര്യം നമുക്ക് പറ്റുന്നത് പോലെ ജോലികൾ ചെയ്ത് നമ്മൾ അതിനെ തരണം ചെയ്തുകൊണ്ട് വരേണ്ടതാണ്